ആ ആരാണ് പറയൂ ആ അതെ അതെ അതെ എന്താ പേരെന്തായിരുന്നു ആ മിഥുല അല്ലേ ആ ഓക്കെ ഓക്കെ ഓക്കെ എനിക്ക് ഇപ്പോൾ മനസ്സിലായി ഒക്കെ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കിന്ന് നമുക്കിന്ന് നെല്ലിയാമ്പതിക്ക് പോകാം നെല്ലിയാമ്പതിയിലെ നെല്ലിയാമ്പതിയിലെ നല്ല നല്ല സീതാർഗുണ്ടിലെ വ്യൂ ഒക്കെ ഉണ്ട് ആ സീതാർഗുണ്ട് മലേൻ്റെ അടുത്തുള്ള ഒരു വെള്ളചാട്ടം ഒക്കെ കാണാം ഓക്കെ പിന്നെ ഒരു മോർണിംഗ് നമ്മുക്കൊരു ഒരു എയിറ്റ് ഓ ക്ലോക്കിന് ഇറങ്ങാം ഒരു നൈൻ ഒരു നൈൻ തേർട്ടി ഒക്കെ അല്ലെങ്കിൽ വേണ്ട ഒരു സെവൻ ഓ ക്ലോക്കിന് ഇറങ്ങിട്ട് ഒരു എയിറ്റ് ഓ ക്ലോക്ക് ആവുമ്പോഴത്തേക്കും എത്തും അപ്പോൾ നല്ല കോടമഞ്ഞൊക്കെയായിട്ട് നല്ല ഭംഗി ഉണ്ടാവും നെല്ലിയാമ്പതി കാണാൻ ഓക്കേ ആ എന്നിട്ട് പിന്നെ ഒരു നൈൻ നൈൻ ഫിഫ്റ്റീനൊക്കെ ആവുമ്പോൾ നമുക്ക് അവിടെ ഒരു ഒരു ഹോട്ടലുണ്ട് ഹോട്ടൽ മലബാർ ഹോട്ടൽ മലബാർ ഹോട്ടൽ അവിടെ കയറിയിട്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റ് മസാലദോശയൊക്കെ കഴിക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിനു ശേഷം എന്നിട്ട് പിന്നെ നമുക്ക് സീതാർഗുണ്ടിലേക്ക് പോകാം സീതാർഗുണ്ടിൽ ആ വ്യൂ പൊയൻ്റൊക്കെ കണ്ടതിൽപ്പിന്നെ അവിടെ കുറച്ചു ഫാം ഹൗസും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പിന്നെ അവിടുത്തെ ലോക്കൽസിൻ്റെയൊക്കെ അടുത്തൊക്കെ പോയി കുറച്ചു നേരം ഇരുന്ന് ഓക്കെ കൺവീനിയൻസ് കുഴപ്പമില്ലല്ലോ കൺവീനിയൻ്റ് ആല്ലെ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ നമുക്ക് റെഡി ആക്കാം നമുക്ക് റെഡി ആക്കാം ഓക്കെ റെഡിയാക്കാം ഓക്കെ എന്നിട്ട് പിന്നെ ആ നമ്മുടെ ഗ്രൂപ്പിലൊരു പതിനഞ്ചു പേരുണ്ടാവും പതിനഞ്ചു പേരുണ്ടാവും ഓക്കെ അപ്പോൾ നമ്മളത് ഒരു ട്രവല്ലർ സെറ്റ് ചെയ്തിട്ടാണ് പോവുന്നത് ആ ഓക്കേ ആ ഓക്കേ പിന്നെ ആ വരാം വരാം വരാം ഓക്കെ ഞങ്ങൾ പിക്ക് ചെയ്തുകൊള്ളാം അവിടെ വന്നിട്ട് ആ പിന്നെ എന്തൊക്കെയാ പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടു പറയാനൊക്കെയിണ്ടോ നൈറ്റ് വരെ ഉണ്ടാവില്ലെ നിങ്ങൾ വൺ ഡേ ട്രിപ്പല്ലേ കമ്പ്ലീറ്റ് ആ ആ ആ ക്യാമ്പ് ഫയറ് ഓർഗനൈസ് ചെയ്തു നമുക്ക് ഡാൻസും കൾച്ചറൽസും ഒക്കെ ആയിട്ട് നമുക്ക് നടത്താം ഒക്കെ ആ ആ ഹട്ടിൽ ആ അതെയതെ അതു തന്നെയാണ് അതു തന്നെയാണ് ഹട്ടിൻ്റെ പുറത്ത് തന്നെയാണ് ചെയ്യുന്നത് ഓക്കേ ഓക്കേ റെഡിയാക്കിത്തരാം പിന്നെ ഫൂഡും കാര്യങ്ങളൊക്കെ അവിടുന്ന് തന്നെ സെർവ്വ് ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് നല്ലൊരു ആ അതെയതെ ബാർബിക്ക്യു തന്നെയാന്ന് ഒക്കെ

ആ പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കേഷനൊക്കെ എടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ എടുത്തു കയ്യിൽ വയ്ക്കാം കുഴപ്പം ഒന്നുമില്ലല്ലോ അല്ലേ ട്രാവെല്ലിങ്ങ് കുഴപ്പമൊന്നുമില്ലല്ലോ ആ ഓക്കേ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞങ്ങളടെ എജൻസിയിൽ തന്നെ ഒരു ഡോക്ടറൊക്കെ ഇണ്ട് നമ്മുക്കതൊക്കെ റെഡിയാക്കാം ഓക്കേ പ്രോബ്ലെംസ് വരികയാണെങ്കിൽ തന്നെ ആ ഓക്കേ ഓക്കെ ആ ഓക്കേ